മൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ഇരുപത്തൊൻപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുവത്തൊൻപത് ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തെട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട്